ഇന്ത്യൻ മാധ്യമങ്ങളെക്കുറിച്ച് പൊതുവായിട്ടൊരു അഭിപ്രായം പറയാനാണ് എങ്കിൽ എല്ലായിടത്തും നന്മയും തിന്മയും ഉണ്ട് ഓരോന്നും നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് ചിലയാളുകൾ ചില രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് അതല്ലാ എങ്കിൽ ചില വ്യക്തികളുമായിട്ടൊക്കെ കൂട്ടുപിടിച്ച് വാർത്തകൾ വളച്ചൊടിച്ച് സമൂഹത്തിലെത്തിക്കുന്ന മാധ്യമങ്ങളും ഉണ്ട് അതായത് ഒരു പത്രത്തിൽത്തന്നെ നല്ലതും ചീത്തയും ഉണ്ട് സത്യസന്ധമായ ഒരു വാർത്ത ഒരു പത്രത്തിലുണ്ടെങ്കിൽ മറ്റൊരു വാർത്ത ഫേക്ക് ആയിരിക്കും നമുക്ക് ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്നറിയാതെ നമ്മളെല്ലാവരും എല്ലാം വായിച്ചു കൂട്ടുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ന്യൂസ് ചാനലുകൾ ന്യൂസ് ചാനലുകളും മിക്കവാറും ഈ പത്രമാധ്യമങ്ങളുടെ തന്നെ ന്യൂസ് ചാനലുകളാണ് അവരെഴുതുന്ന വാർത്തകൾ നമുക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കുന്നു അതൊക്കെ തന്നെയാണ് അവിടെയും സംഭവിക്കുന്നത് എന്തായാലും മാധ്യമം അത്യാവശ്യമാണ് കാരണമെന്താന്ന് ചോദിച്ചാൽ ഈ ലോകത്തിരിക്കുന്ന നടക്കുന്ന ലോകത്ത് നടക്കുന്ന എല്ലാ വിവരങ്ങളും നമ്മുടെ വിരൽത്തുമ്പിലാണ് ഒരു റൂമിലിരുന്നുകൊണ്ട് ഒരു ബട്ടൺ അമർത്തിയാൽ ലോകത്ത് എന്ത് നടക്കുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റും സത്യമാണോ അതിനെന്തു മാത്രം യാഥാർഥ്യമുണ്ട് എന്തുമാത്രം അസത്യമാണതിൽ ഉണ്ടായിരിക്കുന്നത് ഇതൊന്നും നമുക്ക് വിശ്വാസത ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് നമുക്ക് നൂറുശതമാനം ഉറപ്പിൽ പറയാൻ സാധിക്കില്ല എന്നിരുന്നാലും എല്ലാ കാര്യങ്ങളും അറിയാനും എല്ലായിടത്ത് നടക്കുന്നത് അറിയാനും മാധ്യമം നമ്മളെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ പ്രമുഖ ഞാൻ വായിക്കുന്ന പത്രങ്ങളെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് എല്ലാ പത്രമൊന്നും വായിക്കുന്നില്ല മനോരമ പത്രം വായിക്കും ദീപിക പത്രം വായിക്കും പിന്നെ ദേശാഭിമാനി എന്നുള്ള പത്രം ഞാൻ കേട്ടിട്ടേയുള്ളൂ ഇതുവരെ ഞാൻ വായിച്ചിട്ടില്ല മംഗള പത്രം ഇന്ത്യ ടുഡേ ഇതൊക്കെ നമ്മുടെ ഇന്ത്യൻ മാധ്യമങ്ങൾ പത്രങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ ചാനലുകൾ മനോരമ ന്യൂസ് ഏഷ്യാനെറ്റ് ന്യൂസ് ഏഷ്യാനെറ്റ് ന്യൂസ് ട്വൻറ്റി ഫോർ അവേഴ്സ് മാതൃഭൂമി ന്യൂസ് ഇതൊക്കെ നമ്മുടെ ന്യൂസ് ചാനലുകളാണ് ഇതൊക്കെയാണ് എനിക്കറിയാവുന്ന ഞാൻ കാണാറുള്ള ചാനലുകൾ വാർത്താ ചാനലുകൾ ഇതൊക്കെയാണ്